ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽന്നു പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ടുള്ള പാരിസ്ഥിക വെല്ലുവിളികൾന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജലം മലിനമാവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമുക്കിവിടെ മാനാഞ്ചിറ തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറയും കാര്യങ്ങളൊക്കെയിണ്ട് അതൊക്കെ നല്ല വൃത്തി ഹീനമായിട്ടാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നല്ലരീതില് ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണെങ്കില് കുറച്ചു കൂടി നല്ലതായിരിക്കും ചിലവരിത്തിനകത്ത് കുടിവെള്ളായിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫയർ ഫോഴ്സൊക്കെ നമ്മള് അവിടുന്നാണ് വെള്ളവും വാട്ടറും കാര്യങ്ങളൊക്കെ സ്റ്റോറെയ്യുന്നത് അതിനായിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഫയർ ഫോഴ്സിന് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരവിടെന്നാണ് വെള്ളവും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മള് ജല മലിനീകരണാണ് മെയിനായിട്ട് ഇള്ളത്ന്നു വേണെങ്കിൽ പറയാം പിന്നെ വനങ്ങള് വെട്ടി നശിപ്പിക്കുക മരങ്ങള് മുറിക്കുക അങ്ങനത്തെ പല രീതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ മരങ്ങളൊക്കെ മുറിക്കുന്നത്ന്നു പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നൊരു വിഭവമാണ് അപ്പോൾ അത് വിറ്റുകഴിഞ്ഞാൽ നല്ല രീതിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ചന്ദന മരം ഈട്ടി തേക്ക് പല രീതിലുള്ള മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതൊക്ക വിട്ടു കഴിഞ്ഞാൽ നല്ല രീതിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇവര് കൂടുതലായിട്ടും ഈ മരങ്ങളൊക്കെ മുറിക്കുന്നത്ന്നു വേണമെങ്കിൽ പറയാൻ പറ്റും പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണമായിട്ടുള്ളൊരു കാരണം അങ്ങനെ പല രീതിലുണ്ട് ഇപ്പൊ വണ്ടികളുടെ പുകയും കാര്യങ്ങളൊക്കെ കൊണ്ട് അന്തരീക്ഷം നല്ല രീതില് മലിനീകരണം ഒക്കെ ആകുന്നുണ്ട്